എൻ്റെ പ്രദേശത്ത് വിവിധ സാമൂഹ്യ വിഭാഗങ്ങൾ എന്നു പറയുമ്പോൾ മുകൾ മതപരമായ ഒരു ഭാഗങ്ങളുണ്ട് അല്ലാ എങ്കിൽ കാസ്റ്റ് പരമായിട്ടുള്ള വിഭാഗങ്ങളും ഉണ്ട് എന്നു വ്യക്തമായിട്ടു മനസ്സിലാകുന്നുണ്ട് ഒരു പക്ഷേ ഞാൻ വളരെ ചെറുപ്പമായിരുന്നപ്പോൾ എല്ലാ വിഭാഗക്കാരുമായിട്ടിടപഴകുവാനും ഒന്നുമുള്ള അവസരങ്ങളുണ്ടായിട്ടില്ല പ്രത്യേകിച്ച് ഞങ്ങൾ ക്രിസ്ത്യൻസും ഹിന്ദൂസും അല്ലെങ്കിൽ എസ് സി വിഭാഗക്കാർ ഹിന്ദൂസിൽ തന്നെ പല വിഭാഗക്കാരൊക്കെ ആയിട്ട് ഇടപഴകി എനിക്കു പരിചയം പക്ഷേ ഞാൻ വളർന്നു ഞാനെൻ്റെ പ്രദേശത്തു നിന്ന് മാറി മറ്റു പല പ്രദേശങ്ങളും യാത്ര ചെയ്യുകയും ജോലി ചെയ്യുകയും താമസിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഞാൻ കേരളത്തിൽ ഓൾ മോസ്റ്റ് എല്ലാ വിഭാഗക്കാരുമായിട്ട് ഒരുമിച്ചു പഠിക്കാനും പ്രവർത്തിക്കാനും ജോലി ചെയ്യാനും ഇടപഴകാനും പല ട്രെയിനിംഗ് പിന്നെ പരിശീലന പരിപാടികളിലൊക്കെ ആയിരിക്കാൻ അവസരം കിട്ടി ജനറലി നമ്മൾ എന്തുവാണ് എല്ലാ വിഭാഗക്കാരും ഒരേ പോലെ ഒരു പിന്നെ സം ഫ്രണ്ട്സായിട്ടും അതായത് സഹോദരങ്ങളെ പോലെയും സുഹൃത്തുക്കളെ പോലെയും ഇടപഴകുകയാണ് എൻ്റെ രീതി അങ്ങനെയാണ് ഞാൻ അതാണ് കണ്ടിരിക്കുന്നത് പക്ഷേ എന്നാൽ എന്താണ് മാധ്യമങ്ങളിൽ നിന്നും അല്ലാതെ ചിലരുടെയൊക്കെ അനുഭവങ്ങളിൽ നിന്നും എല്ലാ സാമൂഹ്യ വിഭാഗക്കാരും ഒത്തു പോകാത്ത സാഹചര്യങ്ങളും കേൾക്കുകയും അറിയുകയും വിചിന്തനം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുമുണ്ട് ജനറലി നമ്മുടെ സംസ്ഥാനത്ത് കേരളത്തിൽ പിന്നെ ഞാൻ കോട്ടയം ജില്ലയിലാണ് താമസിക്കുന്നത് കോട്ടയം ജില്ലയിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ എല്ലാ സാംസ്കാരിക വിഭാഗക്കാരും ഒത്തൊരുമയോടു കൂടി കടന്നു പോകുന്നുണ്ട് അല്ലേ ജീവിച്ചു പോകുന്നുണ്ട് അതേസമയത്ത് തന്നെ പിന്നെ എന്താണ് സാമൂഹിക ലാടറിൽ ഏറ്റവും താഴെ കിടക്കുന്നത് ഇനിയും പിറകോട്ട് നിൽക്കുന്ന ഒരു വിഭാഗമുണ്ട് എന്നു മനസ്സിലാക്കുന്നുണ്ട് എന്തെല്ലാം രീതിയിലുള്ള റിസർവേഷൻസും പരിഗണനകളൊക്കെ കൊടുത്തിട്ടും മുൻപോട്ടു വരാത്തവർ പക്ഷേ മുൻപിൽ നി നിന്നിരുന്ന ഒരു കാലത്ത് നിന്നിരുന്ന സാമൂഹിക വിഭാഗങ്ങളിൽ പെടുന്നവരിൽ ഒരു നല്ല പറ്റം പിറകോട്ടു പോകുന്ന അതു വിദ്യാഭ്യാസ പരമായിട്ടും അതു തന്നെ എന്തുവാണ് സാമ്പത്തികമായിട്ടും ഉള്ള പിന്നെ പോരായ്മ കൊണ്ട് അത് പുറകോട്ടു പോകുന്ന ഒരു ജനറേഷനെയും ഞാനിന്നു ശ്രദ്ധിക്കുന്നുണ്ട് അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു സ സമൂഹത്തിലെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഒരു ക്രെഡിബിലിറ്റിയൊന്നും കാണാത്ത രീതിയിലവർ പുറകോട്ടു പോകുന്നതായിട്ടു കാണുന്നുണ്ട് എന്നാൽ ഒരു കാലത്ത് എസ് സി വിഭാഗത്തിൽ അതുപോലെയുള്ള താഴെക്കിടയിലുണ്ടായിരുന്ന സമൂഹങ്ങൾ വളരെ നല്ലതായിട്ടും മുൻപോട്ടു വന്നിട്ടുണ്ട് ജീവിതത്തിൻ്റെ നല്ല ലെവലിലേക്കു വളർന്ന് തലമുറകളായിട്ടു വളർന്നു വന്ന പ്രത്യേകിച്ച് സർക്കാരിൻ്റെ സർക്കാരിൻ്റെ റിസർവേഷൻ പ്രകാരം പല തൊഴിൽ മേഖലകളിലൊക്കെ എത്തിപ്പെട്ട് ജീവിതത്തിൽ മുന്തിയ വിഭാഗക്കാരുടൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ചയും സന്തോഷമായിട്ടു കാണാറുണ്ട് കോട്ടയം ജില്ലയിൽ എൻ്റെ അനുഭവത്തിൽ പ്രാദേശികമായിട്ട് സാമൂഹ്യ വിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അങ്ങനെയൊന്നും ഇല്ല എല്ലാവരും അവരവരുടെ ആഘോഷങ്ങളും ഉത്സവങ്ങളും പെരുന്നാളുകളും ഒക്കെ നന്നായിട്ട് ഒരുമിച്ചാഘോഷിക്കുകയും ഒരുമിച്ച് പിന്നെ എന്തുവാണ് മറ്റുള്ളവരുമായിട്ട് സഹകരിക്കുകയും അവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ടാണ് കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്